ഇപ്പോൾ നമ്മുടെ ഈ ലോകം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം വളരെയധികം പരിണമിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ജനിച്ചത് പറഞ്ഞ് കഴിഞ്ഞാൽ തൊണ്ണൂറുകളിലാണ് അന്നത്തെ കാലഘട്ടം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ആ കാലഘട്ടം വച്ച് നോക്കുമ്പോൾ ഒരുപാടധികം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ ജനിച്ച സമയത്ത് ഇവിടെ കംപ്യൂട്ടറുകൾ കുറവായിരുന്നു മൊബൈൽ ഫോണില്ല ടെലി ഫോൺ തന്നെ ഭയങ്കര കുറവായിരുന്നു ടീ വി കള് അതുപോലെ വണ്ടികള് എല്ലാ സംവിധാനങ്ങളിലും ഭയങ്കരമായ ഒരു മാറ്റമാണ് ഇപ്പത്തെ കാലഘട്ടത്തില് വന്നിരിക്കുന്നത് നമ്മള് ഇപ്പം എന്താ ചിന്തിക്കുന്നത് നമ്മളിപ്പോൾ മാറുന്ന ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ ടെക്നോളജികളാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ നമ്മുടെ ചന്ദ്രനില് ചന്ദ്രയാൻ മൂന്ന് ദൗത്യം ചന്ദ്രയാൻ്റെ സൗത്ത് പോളില് ദക്ഷിണ ധ്രുവത്തിലെത്തി അതായത് ഇതുവരെ തന്നെ ആരും എത്താത്ത രീതിയില് നമ്മുടെ ഭാരതം ചന്ദ്രയാൻ്റെ ചന്ദ്രയാൻ ത്രീ എന്നുള്ള പ്രൊജക്റ്റിലൂടെ ദക്ഷിണ ധ്രുവത്തിലെത്തി ഇപ്പോൾ ആദിത്യ വൺ അതായത് ചന്ദ്ര സൂര്യനിലേക്കുള്ളൊരു സൂര്യൻ്റെ കാര്യങ്ങള് സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ളൊരു വാഹനമാണ് ഇപ്പം വിക്ഷേപിച്ചിരിക്കുന്നത് ഇപ്പം അതുപോലൊരു ഓരോ ദിവസവും അതിൻ്റെ കാര്യങ്ങള് നടന്ന് കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മള് ചെന്ന് എത്താത്ത മനുഷ്യൻ ചെന്ന് എത്താത്ത കാര്യങ്ങള് കുറവാണെന്നാണ് നമ്മളിപ്പോൾ ഇപ്പം പറയേണ്ടത് പണ്ട് ഉപയോഗിച്ചിരുന്ന യുദ്ധ സാധനങ്ങളൊന്നുമല്ല ഇപ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര പുതിയ പുതിയ ടെക്നോളജികള് ഉപയോഗിച്ച് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ ഭാരതത്തിൽ നിന്ന് എവിടേക്ക് വേണമെങ്കിലും മിസൈല് അയക്കാവുന്ന ടെക്നോളജികള് നമ്മള് കണ്ട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരുനിമിഷം കൊണ്ട് പെട്ടെന്ന് ഇവിടെ ഇരുന്നിട്ട് ഏത് ലോകത്തിൻ്റെ ഏതറ്റത്തേക്കും വ് വിളിക്കാം നേരിട്ട് കണ്ട് സംസാരിക്കുന്ന പോലെ ചെയ്യാം വീഡിയോ കോള് സംവിധാനങ്ങള് കണ്ട് പിടിച്ചു പിന്നെ ഇൻറർനെറ്റ് സംവിധാനം എന്ത് കാര്യങ്ങള് വേണമെങ്കിലും നമുക്ക് ഇൻറർനെറ്റില് സെർച്ച് ചെയ്ത് കണ്ട് പിടിക്കാം പെട്ടന്ന് പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും കുറെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും നാട്ട് വൈദ്യന്മാരൊക്കെ ആയിരുന്നു ഇപ്പോൾ അവര് നാട്ട് വൈദ്യന്മാര് ആയുർവേദവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആയുർവേദത്തിലും കുറെ അധികം മാറ്റങ്ങള് വന്നിട്ടുണ്ട് അതുപോലെ എം ബി ബി എസ് ഡോക്ടർ മാര് പി എച്ച് ഡി ഇപ്പോൾ ഓരോ ഓരോ വിഷയങ്ങളിലും സ സപ്പറേറ്റ് സപ്പറേറ്റ് ഡോക്ടർമാരാണ് എന്താണ് അസുഖം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് ചെയ്യാനുള്ളത് അതും മനുഷ്യന്മാരല്ലാതെ കൂടുതൽ ടെക്നോളജി കംപ്യൂട്ടറും റോബോട്ടിൻ്റെ സഹായത്തോട് കൂടിയുള്ള ഓപ്പറേഷൻ പിന്നെ യാത്ര സംവിധാനം വച്ച് നോക്കുവാണന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒന്നോ രണ്ടോ ബസ്സുകള് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ പുതിയ മൊ ഓരോ വണ്ടികളെ എങ്ങനെ ഏതൊക്കെ തരത്തില് ഓഫ് റോഡാണെങ്കിൽ അങ്ങനെ അതിലോടാൻ പറ്റുന്ന വണ്ടികള് ഇപ്പോൾ നല്ല എൻ എച്ച് ഹൈവേ ഹൈവേ നോക്കുവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കുറെയധികം ഹൈവേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങള് ചെയ്യാനും നടക്കാനും അതായത് ഇപ്പോൾ ഓരോ സ്ഥലത്തും പാർക്കുകള് വന്നിട്ടുണ്ട് ഇങ്ങനെ നോക്കുവാണെൽ നമ്മുടെ ദിവസം നമ്മുടെ ലോകം ഇപ്പം ദിനം ദിനമല്ല ഓരോ സെക്കന്റിലും മാറിക്കൊണ്ടിരിക്കുവാണ് പരിണമിക്കുക ഓരോ സെക്കന്റിലും പുതിയ പുതിയ ഓരോ ഓരോ കാര്യങ്ങള് ഉണ്ടായികൊണ്ടിരിക്കുവാണ് അത് നമ്മുടെ ജീവിതത്തിനുണ്ടാക്കുന്ന മാറ്റങ്ങളും വളരെയധികമാണ് ഇപ്പോൾ പണ്ടത്തേക്കാട്ടിലും ഭയങ്കര കുറച്ചും കൂടെ സുരക്ഷ എന്ന് പറയാൻ പറ്റില്ല എന്തായാലും കുറച്ചും കൂടെ ജീവിക്കാൻ എളുപ്പമുള്ള ഒരു ഇതാണ് എന്ന് വച്ച് പക്ഷെ അതിനൊരു നെഗറ്റീവുണ്ട് എന്താന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മള് പണ്ട് നല്ല ശുദ്ധമായ പുഴകളും കാര്യങ്ങളൊക്കെയായിരുന്നു കടല് അതുപോലെ ശുദ്ധമായ വായു എല്ലാം കുറച്ചും കൂടെ ഇന്നത്തേക്കാട്ടിലും ഭയങ്കര ശുദ്ധ അതായത് പ്യുവർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇതായിരുന്നു പക്ഷെ ഇപ്പോൾ കൂടുതലും ഇൻട്രസ് ഇൻട്രസ്ട്രീസ് കാര്യങ്ങളും അതായത് എല്ലാം വന്നതോട് കൂടെ മാലിന്യങ്ങളവര് മാലിന്യങ്ങള് കൂമ്പാരമാകുന്നു അവര് കുറെ സ്ഥലങ്ങളില് മാലിന്യങ്ങൾ കെട്ടി കിടക്കുക അത് വെള്ളത്തില് പോവുക അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അതുപോലെ കൃഷി രീതിക്കെന്ന് പറഞ്ഞാൽ പണ്ട് അധികവും നമ്മുടെ നാട്ടില് പച്ചില അതായത് ഗ്രീൻ ഗ്രീൻ ആയിട്ട് ഉള്ള യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല കൂടുതലും ഫെർട്ടിലൈസേഴ്സക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ ചില ബുദ്ധിമുട്ടും കാര്യങ്ങള് അതിനും ഉണ്ടാവുന്നുണ്ട് എന്നാലിതിലൊക്കെ ഉപരി നമുക്ക് കു കൂടുതല് നല്ല നല്ല ഇതാണ് പോസിറ്റിവായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്